എന്നെ ഉറക്കെ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള നിരവധി പുസ്തകങ്ങൾ അതായത് നിരവധി പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ പറയുകയാണെങ്കിൽ ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് അതിൽ കൂടുതൽ മുന്നിട്ട് നില്കുന്നത് കാരണം തൂലികയിലൂടെ സ്നേഹം എഴുതിയ സുൽത്താൻ എന്നാണല്ലോ നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് നമുക്ക് എത്ര വിഷമത്തിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് സങ്കടത്തിൽ ഇരുന്നാലും അദ്ദേഹത്തിൻ്റെ ഓരോ കൃതികൾ അതായത് ഭൂമിയുടെ അവകാശികളോ അല്ലെങ്കിൽ പാത്തുമ്മയുടെ ആടോ എൻറ്റുപ്പൂപ്പാക്കൊരാനെണ്ടായിരുന്നു ഇതേത് വായിച്ചാലും നമുക്കതൊരു വല്ലാത്ത ഒരു സന്തോഷം അത് പോസിറ്റീവ് എനർജി തരുന്ന ഓരോ കൃതികളാണ് ഇപ്പം മതിലുകൾ വായിച്ചാലോ അത് നമുക്ക് അത് ഏതൊരു കഥയും അതിൻ്റെ അദ്ദേഹത്തിൻറ്റേതായ ഒരു രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കതൊരുപാട് പോസിറ്റീവ് ആയിട്ട് ഒരെനർജി തരുന്നതാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും എനിക്ക് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ വെച്ച് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന് പറയുന്നത് ആ പുസ്തകം വായിക്കുമ്പോഴാണ് ഞാൻ ഒരുപാട് ഒരുപാട് ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കൃതി വായിക്കുമ്പോഴാണ് ഇതിൻ്റെ കഥയെന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു തൊഴിലാളി അതായത് ഒരു സാധാരണക്കാരനായ ഒരു പാചക തൊഴിലാളി അദ്ദേഹത്തിൻ്റെ ഇരുപത്തി നാലാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ മൂക്ക് കാരണം വരുന്ന ലാഭങ്ങളും നഷ്ടങ്ങളും ഒക്കെ വളരെ നർമ്മരൂപേണ അവതരിപ്പിച്ച ഒരു കൃതിയാണ് വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന് പറയുന്നത് ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ വരുന്ന ഓരോ പൊള്ളത്തരങ്ങളും വളരെ നർമ്മരൂപേണ ഇത് കഥാകൃത്ത് ഇതിൽ നമുക്ക് കാണിച്ച് തരുന്നുണ്ട് ഒരു മൂക്ക് വളർന്നത് വഴി ആ മൂക്കിൻ ആ മൂക്കൻ്റെ ഓരോ അദ്ദേഹത്തിന് കിട്ടുന്ന അംഗീകാരങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന അദ്ദേഹത്തിനുണ്ടാകുന്ന വിഷമങ്ങളും എല്ലാം വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു കഥയാണത് അതേപോലെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല പല കള്ളത്തരങ്ങളും അല്ലെങ്കിൽ പൊള്ളത്തരങ്ങളും പൊളിറ്റിക്സും ഇതെല്ലാം വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ച് നമ്മുക്ക് ഒരുപാട് നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു കഥ കൂടിയാണിത് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാഭാഗമെന്ന് പറയുന്നത് മൂക്കനും അദ്ദേഹത്തിന് രണ്ട് സെക്രട്ടറിമാറുമായിട്ടുള്ള പ്രണയമാണ് അതൊക്കെ വളരെ അതായത് വളരെ തന്മയത്തോടുകൂടി അവതരിപ്പിച്ചിട്ടുണ്ട് കഥാകൃത്ത് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് എത്ര ചിരിക്കാത്ത ഒരു മനുഷ്യനാണെങ്കിലും നമുക്കൊരുപാട് ചിരിക്കാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണത് അതേപോലെ മൂക്കൻ്റെ മൂക്ക് റബ്ബർ മൂക്കെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി മൂക്കനെ അധിക്ഷേപിക്കുന്ന ഒരു കഥാഭാഗം ഉണ്ട് അതൊക്കെ നമുക്ക് വളരെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഭാഗങ്ങളാണ് അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതും എന്നെ ഏറ്റവും ചിരിപ്പിച്ചതും വിശ്വവിഖ്യാതമായ മൂക്കെന്ന് പറയുന്ന ഒരു കൃതിയാണ്